ഹലോ മൈജി എലക്ട്രോണിക് ഷോപ്പല്ലേ ഞാന് അവിടുന്ന് കുറച്ച് ദിവസം മുമ്പൊരു ലാപ്ടോപ്പ് വാങ്ങിയിരുന്നു ഒരു ഡെല്ലിൻ്റെ ലാപ്ടോപ്പായിരുന്നു അതിൻ്റെ പ്രകടനം അല്ലെങ്കില് അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാനിപ്പോള് വന്നത് ലാപ്ടോപ്പെന്ന് പറയുന്നത് പല നമ്മളിപ്പോള് പല സൈറ്റില് നിന്ന് കുറേ ലാപ്ടോപ്പ് ഞാന് കുറേ ഉപയോഗിച്ചിട്ടുള്ളതായതുകൊണ്ട് പറയുകയാണ് ബാറ്ററിയൊക്കെ വേഗം കഴിയും പിന്നെ കുറച്ച് നമ്മളിപ്പം കുറച്ചങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേഗതയ്ക്ക് കുറവുണ്ടാകും അതായത് സ്പീഡ് കുറയുന്നത് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ നമ്മള് ഞാനിപ്പം വാങ്ങിയ മൈജിയിൽ നിന്ന് വാങ്ങിയ ഡല്ലിൻ്റെ ലാപ്ടോപ്പിന് ആ ലാപ്ടോപ്പ് നല്ല അതിമനോഹയമായി കാഴ്ചവെച്ചു എന്നുവെച്ചാല് നമ്മള് കുറച്ചുനേരം കുത്തിവെച്ചു കുറേ നേരം കുറേ നേരമെന്ന് പറഞ്ഞാല് കുറേ നേരം എന്റെ മൂന്നുനാല് മീറ്റിങ് കഴിഞ്ഞു അങ്ങനെ കുറേ നേരം അത് ചാർജിലുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു അതില് കാരണം അത് സ്പീഡിലാണ് അത് വോക്ക് ചെയ്യുന്നത് അപ്പോള് അതിനെയൊക്കെക്കുറിച്ച് ഒരു റിവ്യൂ പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ്